മതം ഞങ്ങളുടെ മതം ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുക എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് കുർബാന ഉണ്ട് ക്രിസ്മസിന് ആൾക്കാർ കൂടാറുണ്ട് ഈസ്റ്റർ ക്രിസ്മസ് ഈസ്റ്ററാണ് ഞങ്ങൾ വലിയ ആഘോഷങ്ങളിൽ പിന്നെ അതിന് കൂടുതൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ആഹ്ളാദത്തോടെ കൂടിയും ഇത് ചെയ്യുന്നത് പെരുന്നാളിനാണ് പെരുന്നാളാവുമ്പം കുറേ ചെണ്ട ബാ മറ്റ് സാധനങ്ങൾ കുറേ ഉണ്ടാവും പിന്നെ പെട്ടിക്കട അതൊക്കെ ആകുമ്പം എല്ലാവർക്കും പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒക്കെ അതൊക്കെ ഭയങ്കര കാര്യമായിരിക്കും അപ്പം പള്ളിയിൽ രാവിലെ കുർബാനക്ക് തന്നെ നിറച്ചും ആൾക്കാർ പിന്നെ പ്രദിക്ഷണം കുറേ വൈകി പോവുക അപ്പം അത് എല്ലാവർക്കും മറ്റുള്ളവർക്കും ഭയങ്കര അതിശയത്തോടു കൂടി ഇവർ നമ്മളെ നോക്കി നിൽക്കും ഇരുന്ന് കൊണ്ട് എല്ലാവർക്കും കൊച്ച് കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാരും മുതിർന്നവർ അപ്പാപ്പൻ അമ്മാമമാർക്ക് വരെ ഭയങ്കര സന്തോഷം തന്നതാണ് ഇത് വർഷത്തിൽ ഒരിക്കൽ ആയത് കൊണ്ട് തന്നെ എല്ലാവരും ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ആകാംഷ പൂർവ്വം കാത്തിരിക്കും അതേപോലെ തന്നെ അന്ന് വൈകുന്നേരം എല്ലാം വേറെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പോഴും ഈ അവിടെ ഒരു ഒത്തുകൂടലാണ് ഉണ്ടാവുന്നത് ജാതി മത മന്യേ എല്ലാവരും ഒരുമിച്ച് കൂടി പോകും